ഹലോ സർ ഇപ്പം വലിയ കുഴപ്പമില്ല ഭയങ്കര വിഷമം ഭയങ്കര ഭയങ്കരമായിട്ട് പനിക്കുന്നു ഭയങ്കര ക്ഷീണം ഭയങ്കര തലവേദനയോക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം ഇല്ല ഇപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ നല്ലതായിരുന്നു വയ്യ ഒട്ടും വയ്യ ഇപ്പം വീട്ടിലാണ് ഓക്കെ അ വയ്യ ഇല്ല ഡോക്ടർ പോകത്തില്ല

ഓക്കെ ഡോക്ടർ

മറ്റേ പ്രശ്നം എന്നുപറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് അ പിന്നെ ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ട് ഓക്കെ ഡോക്ടർ ഫുഡ് കുഴപ്പമില്ല എൻ്റെ ഒരു കസിൻ ഫുഡ് സാധനങ്ങള് എത്തിച്ചരുന്നുണ്ട് കുഴപ്പമില്ല

ഓക്കെ ഡോക്ടർ ഓക്കെ ഡോക്ടർ ഡോക്ടർ ഡോക്ടറിന് സഹായം ചെയ്യാൻ പറ്റുമോ ഇവിടെ തലവേദനയ്ക്കും ഇതിനൊക്കെയുള്ള മരുന്നുകൾ തീർന്നിട്ടുണ്ടേ അപ്പം അതൊന്ന് എത്തിച്ച് തരാനുള്ള ഇതൊന്നു ചെയ്യാന് പറ്റുമോ ഓക്കെ ഓക്കെ ഡോക്ടർ കുഴപ്പമില്ല ഓക്കെ ഡോക്ടർ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്യൂ